ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് പണ്ടുള്ള കാലങ്ങളെക്കാളും നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അത് ഒത്തിരി ഏറെ ഒത്തിരി ഏറെ ഒത്തിരി ഏറെ വളർന്നു പോയ ഒരു സംഭവമാണ് അതിൽ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അച്ചടി മാധ്യമങ്ങളായ നമ്മുടെ പത്രം മാസിക അങ്ങനെയൊക്കെ കുറച്ചു കുറച്ചു കാര്യങ്ങളെ നമുക്ക് അറിയാവുള്ളൂ അല്ലെങ്കിൽ ടീ വിത് ടെലിവിഷൻ നമുക്ക് ഒരു ദിവസത്തെ ദൂരദർശനിലെ വാർത്ത ഇതൊക്കെയായിരുന്നു പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് അധികം അനേകം ചാനലുകൾ തന്നെ രൂപപ്പെട്ടിരിക്കയാണ് പലപല പിന്നെ പല പല പേരുകളിലും ടി വിയിൽ ടെലിവിഷൻ നമുക്ക് എണ്ണയ എണ്ണിയാൽ തീരാത്ത അത്രമാത്രം ചാനലുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം പലപല ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ ഡെവലപ്മെൻ്റ്സുകൾ ഒത്തിരി ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു ദൃശ്യമാധ്യമങ്ങൾ ഉണ്ട് ധാരാളം അതുപോലെതന്നെ സ്രാവ്യ മാധ്യമങ്ങളുണ്ട് പക്ഷേ അതിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ആയിട്ട് തോന്നിയിരിക്കുന്നത് പത്രമാധ്യമങ്ങളെയാണ് പത്രമാധ്യമങ്ങളിൽ മറ്റു സോഷ്യൽ മീഡിയകളെക്കാളും വളരെ വ്യക്തമായിട്ട് കൃത്യമതയോടു കൂടി അവർ വിവരങ്ങൾ രേഖപ്പെടുത്താനുണ്ട് എന്ത് എന്തെന്നു വെച്ചാൽ സോഷ്യൽ മീഡിയകൾ അവരുടെ ഒരു ലാഭത്തിനുവേണ്ടി അവർക്ക് എത്രമാത്രം ലൈക് കിട്ടുന്നോ ഷെയർ കിട്ടുന്നോ അങ്ങനെ ഒരു ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഓരോ ന്യൂസും ഇടുന്നത് അത് ചിലപ്പോൾ സത്യമാകണമെന്നു തന്നെയില്ല എന്തെങ്കിലും ഒരു വാർത്തകൾ കേട്ട് അതിനു ലൈക് മേടിക്കുക അതിനു കമൻ്റ്സ് എടുക്കുക എന്നൊരു വിചാ എന്നൊരു സ എന്നൊരു ധാരണയോടു കൂടിയാണ് ഇത് ഒട്ടു മിക്കവാറും സോഷ്യൽ മീഡിയകളും ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതിലേതാണ് സത്യം എന്നു നമുക്ക് പല കാര്യങ്ങളിൽ അതിൽ സംശയപരമായ കാര്യങ്ങൾ ഉളവാക്കി നമുക്ക് ഉളവാക്കിയിട്ടുണ്ട് അത് നമുക്ക് അതു നമുക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുഞ്ഞു കാലം തൊട്ടെ ഞങ്ങൾക്ക് ഈ പത്രം മാസികയിലാണ് പത്രം ദിവസവും ഞങ്ങൾ പത്രം വരുത്താറുണ്ട് അതിൽ ഇപ്പം ഇപ്പം പല പല പേരുകളിൽ പത്രങ്ങൾ ഉണ്ട് എന്നാലും പത്രത്തിൽ വരുന്ന വാർത്തയാണ് ഒന്നു കൂടി വിശ്വാസമായിട്ട് എനിക്ക് തോന്നാറുണ്ടായത് അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു നല്ലൊരു ദിവസം ദിവസം വായന ദിവസം ഒരു പത്രം വായിക്കുക എന്നുള്ളതു തന്നെയാണ് രാവിലത്തെ ഏറ്റവും വലിയ ഒരു ഒരു പ്രഭാതകൃത്യങ്ങൾ ഒന്നുപോലെ തന്നെയാണ് ഞങ്ങൾ കൊണ്ടു പോകുന്നത് അതിലെ വിശ്വസ്തത അതിലെ പിന്നെ പാരമ്പര്യം പത്ര പാരമ്പര്യം ഇതെല്ലാം ഒരു പത്രം വായിക്കുന്നതിലൂടെയാണ് അതുപോലെ തന്നെ ചിലപ്പം മാസികകൾ പണ്ടുള്ള മാസിക അതിപ്പോഴും തന്നെയുണ്ട് അതിലും കുറെ കാര്യങ്ങൾ ആരോ കഥകളും കവിതകളും ലേഖനങ്ങൾ പിന്നെ അതുപോലെ ആരോഗ്യപരമായി കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് മാസികകളുണ്ട് അതും എനിക്ക് വളരെ ഇഷ്ടമായിട്ടു തോന്നാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസം മാധ്യമങ്ങളിൽ ഏതാണ് വിശ്വാസം കൂടുതൽ എന്നു ചോദിച്ചാൽ എനിക്ക് പത്രം തന്നെയാണ് പത്രത്തിലെ വാർത്തകൾ തന്നെയാണ് എനിക്ക് വിശ്വാസം വരുന്നത്